എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് എൻ്റെ മക്കൾക്ക് അതായത് എൻ്റെ മോൾക്ക് ഉടുപ്പ് തയ്ക്കാൻ തുടങ്ങിയത് എൻ്റെ മോൾക്ക് ഉടുപ്പ് തയ്ക്കാൻ തയിച്ച് ആദ്യം കൈകൊണ്ടാണ് ഞാൻ നെടി തുടങ്ങിയത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഓരോരുത്തരും എന്നെ എൻ്റെ കഷ്ടപ്പാട് കണ്ടുകൊണ്ട് എനിക്ക് ഒരു മിഷ്യൻ വാങ്ങിച്ചു തന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉടുപ്പുകളെല്ലാം തയ്ച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തയിക്കുന്ന ഇടയ്ക്ക് എനിക്ക് നടുവിന് വേദന കൈ കൈകൾക്കു വേദനകൾ ഉണ്ടാവുന്നുണ്ട് പിന്നെ ശരീരം ബുദ്ധിമുട്ടുള്ള കൊത്തികളുണ്ടാവുന്നുണ്ട് പിന്നേ പിന്നെ ചില സമയത്ത് ഇച്ചിരി സ്റ്റിച്ച് ഒക്കെ തയിക്കാൻ ഭയങ്കര പാട് വരുമ്പോൾ നമ്മൾ അതുകൊണ്ട് കൈകൊണ്ടാണ് കുത്തി കുത്തി കുത്തി തയ്ക്കുന്നത് നല്ല അതായത് സൂചികൾ തയ്ച്ചു വരുമ്പം സമയത്ത് സൂചി ഒടിഞ്ഞ് പോകാറുണ്ട് അന്നേരം ഇപ്പം നമ്മൾ അതെല്ലാം പതുക്കെ കൈകൊണ്ടാണ് ഏണിയെടുത്ത് തയ്ച്ച് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കൈകൾക്ക് അവിടെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കണ്ണുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒത്തിരി നമ്മൾക്ക് ഇതുണ്ട് എന്നാലും നല്ല സൂപ്റ് ആണ് തയ്ക്കാനൊക്കെ നമുക്ക് രസമാണ് നമുക്ക് സമയം പോവാനും നല്ല സാമ്പത്തികം ഉണ്ടാക്കാനും നമുക്ക് നല്ലൊരു ഇതാണ്